അങ്ങനെ വിവാഹങ്ങളിൽ ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ന സമ്മാനം എന്ന് അങ്ങനൊന്നും കൊടുക്കില്ല ചിലർ സ്വർണാഭരണങ്ങളായിട്ട് മാല വള അങ്ങനെയെല്ലാം കൊടുക്കും മറ്റ് ചിലർ അതൊന്നും കൊടുക്കാതെ ഇരിക്കുകയും ചെയ്യും അതൊക്കെ ഒരു ഗിഫ്റ്റ്കളായിട്ട് എല്ലാം കൊടുക്കും പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കന് സ്ത്രീധനമെന്ന പേരിൽ ഒരുപാട് പണവും സമ്പത്തും ഇതെല്ലാം കൊടുക്കുന്നതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്